മലയാളികൾ അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ ആഘോഷിക്കാനും ആദരിക്കുവാനും അവരുടെ ഭാഷ വളരെയധികം ഉപകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാടകങ്ങളിലൂടെ കഥാപ്രസംഗങ്ങളിലൂടെ കവിതകളിലൂടെ തുള്ളൽ പാട്ടുകളിലൂടെ കഥകളിലൂടെയൊക്കെ അവരുടെ ഭാഷകളുടെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അതവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ഒരു അവസരമാണ് സംജാതമാകുന്നത് അത് വിദേശരാജ്യങ്ങളിലുള്ളവർകൊക്കെ ഈ നമ്മുടെ നാടകങ്ങളും ഇതുമെല്ലാം വീഡിയോ വഴിയും ഫേസ്ബുക്ക് വഴിയും അവിടെ യൂട്യൂബിലൂടെയൊക്കെ കണ്ടു അവർ അത് മനസ്സിലാക്കി എടുക്കുമ്പോഴേക്കും അവർക്ക് നമ്മുടെ ഭാഷയെ പറ്റിയുള്ള ഒരു ബോധം ഭാഷ അവർ പഠിച്ചു അവർക്ക് അത് മനസ്സിലായില്ലെങ്കിലും ആംഗ്യ ഭാഷകളിൽ നിന്നും ഒക്കെയുള്ള അവതരണ അവതരണ ശൈലിയിലൂടെയൊക്കെ അവർക്ക് അത് അവർക്ക് അത് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ മലയാള ഭാഷ മറ്റ് അന്യരാജ്യങ്ങളിലുമൊക്കെ അത് പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഇങ്ങനെയുള്ള കലാരൂപങ്ങളെ കലാസൃഷ്ടികളെ നമുക്ക് നമുക്ക് പ്രകടനത്തിലൂടെ കലാസൃഷ്ടികളുടെ പ്രകടനത്തിലൂടെ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെയുള്ള ആളുകളെ ഇതുപോലെയുള്ള ഫെസ്റ്റിവലിലും സീസണുകളിലും ഓരോ കാര്യങ്ങൾ കലോത്സവങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആ വേദികളിലൂടെ അവർ ഇത് കാണുമ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ളവർ നമ്മുടെ ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാനും ഭാഷയെപ്പറ്റിയുള്ള ഒരു ഏകദേശ രൂപം അവരുടെ മനസ്സിലേക്ക് കൊണ്ടു വരുവാനും സാധിക്കും